ഹലോ ആ പറഞ്ഞോളൂ സാർ ആ അതെ അതെ ഓൾഡ് വായനാടാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓ അപ്പോൾ ഫുൾ ഒരു വൺ ഡേ ട്രിപ്പാണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ആ ആ അങ്ങനെയാണല്ലേ അപ്പോൾ ട്രക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ തോൽ തോൽപെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി ചെയ്ത് അതേപോലെ മുത്തങ്ങ ഉണ്ട് പിന്നെ ബ്ര പിന്നെ ബ്രഹ്മഗിരി മല അങ്ങനത്തെ മലകളിലൊക്കെ നമുക്ക് ട്രക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ ഈ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി അവിടെ അവിടത്തെ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യും വണ്ടി ഫുഡ് ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യും അവിടെ നിങ്ങൾ പേർ ഹെഡിന് ടു ഹൺഡ്രഡ് റുപ്പീസ് ആ അല്ലെങ്കിൽ ഒരു പാക്കേജ് പോലെയുണ്ട് പക്ഷേ അത് നിങ്ങൾ പത്ത് പന്ത്രണ്ട് പേരുള്ള ഒരു പാക്കേജ് ഉണ്ട് അപ്പോൾ കുറച്ചും കൂടെ വണ്ടി മാറും വലിയ വണ്ടി ഒക്കെയാകും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മറ്റേ ബസ് എല്ലാം കണ്ടിട്ടുണ്ടാകും ഓപ്പൺ ബസ് ഒക്കെ ആ അതുപോലെത്തെ ഒക്കെ ആയിരിക്കും പിന്നെ അതുപോലെ ഈ ട്രക്കിങ്ങിന് കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടി ഫോർ ഇൻടു ഫോർ വണ്ടിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പാതിവരെ പിന്നെ നമ്മൾ നടന്നു കയറണം അങ്ങനെയാണല്ലോ ഓക്കെ അപ്പോൾ അതും പ്രൊവൈഡ് ചെയ്യും ആ ഓക്കെ അതുപോലെ ഫുഡ് അതും നല്ല ഉച്ചക്ക് നല്ല കഞ്ഞി കപ്പ മീകറി ഇതൊക്കെയാണ് ചെയ്യുക ഉച്ചക്കുള്ള ഫുഡ് അപ്പോൾ നൈറ്റ് വേണമെങ്കിൽ നമുക്ക് നിങ്ങൾ പറയുന്ന ഡിഷസ് നമ്മൾ വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്ത് തരും മോർണിംഗ് നിങ്ങൾക്ക് ഒരു രാവിലെ ഒരു ആറുമണി ആകുമ്പം വരികയാണെങ്കിൽ നമുക്ക് മുത്തങ്ങ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ഹും ഓക്കെ നമ്മൾ രാവിലെ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് കറക്റ്റ് കാണാനും ഒക്കെ ഒരു ഇതായിരിക്കും ഓക്കെ ഓക്കെ ആണല്ലേ അപ്പോൾ കൺഫോം ആക്കാം അല്ലേ ഓക്കെ ശരി ഓക്കെ നിങ്ങൾ ഡേറ്റും കാര്യങ്ങളെല്ലാം കൺഫോം ആക്കിയിട്ട് ഈ നമ്പറിലേക്ക് എന്നെ വിളിച്ചാൽ മതി ഓക്കെ ശരി താങ്ക്യൂ സോ മച്ച്